കണ്ണൂർ ജില്ലയിൽ ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ കുടിവെള്ളം ഇല്ലാത്ത ആൾക്കാരുണ്ട് ഭക്ഷണം ഇല്ലാത്ത ആൾക്കാരുണ്ട് എത്രയോ പേർ ഭക്ഷണവും കുടിവെള്ളവും ഒക്കെ കിട്ടാണ്ട് മരി മരണത്തെ മരിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് പിന്നെ പീഡനം ചെറിയ മക്കളെ വരെ പീഡിപ്പിച്ചിട്ട് കൊന്നള കൊല്ലുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് പിന്നെ നേട്ടങ്ങൾ എന്തെല്ലാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പെൻഷൻ കിട്ടുന്നതും പിന്നത് സഹായങ്ങൾ ഓരോ സഹായങ്ങൾ ഓരോ ആളുകൾ ചെയ്ത് തരുന്നത് അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ വെല്ലുവിളികൾ എന്തെല്ലാന്ന് വെച്ചാൽ ഒരാളെ വെല്ലുവിളിക്കുക കൊല്ലും അങ്ങനെ ഇങ്ങനെ പണം തട്ടിയെടുക്കുക ഇങ്ങനെ ഓരോ സംഭവങ്ങളാണ്